ഗ്രാമത്തില് ജീവിച്ച നമുക്ക് നമ്മുടെ ജീവിത ശൈലി നമുക്ക് എങ്ങനെ ജീവിക്കണം നമുക്ക് അത് പോലെ ജീവിക്കാം ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ നമുക്ക് രോഗങ്ങൾ കുറവായിരിക്കും കാരണം ഈ തലമുറകൾ ആയിട്ട് മാറി മാറി വന്ന കുറെ ചികിത്സാരീതികളും പച്ച മരുന്നുകളും വൈദ്യന്മാരൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാവും അതുപോലെ ഒരു ബഹളം ഉണ്ടാവില്ല എയർ പോലുഷനോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രശനങ്ങളും ഉണ്ടാവില്ല നമുക്ക് നല്ല ശുദ്ധ വായു കിട്ടും നമുക്ക് എന്താ വേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള പല ഭക്ഷണങ്ങളും കിട്ടും

നഗരങ്ങളേക്കാളും ഏറ്റവും ഏറ്റവും ബെറ്റർ നമ്മുടെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നതാണ് എന്നു വെച്ചാല് തിക്കും തിരക്കും ഉണ്ടാവില്ല നമുക്ക് നമുക്കൊരു പ്രൈവസി ഉണ്ടാവും നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിൽ ജീവിക്കാൻ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നമുക്ക് നമ്മുടേതായ ജീവിതം ഗ്രാമങ്ങളിൽ ജീവിച്ച് തീർക്കാം